എൻ്റെ ജോലിയുടെ കരിയറിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണായിട്ട് ഇരിക്കണം അതായത് പെട്ടെന്ന് ബെനഫിറ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കാട്ടും കുറച്ച് അധിക കാലം വർക്ക് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പെട്ടെന്ന് ബെനഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നതിനെക്കാളും ബെറ്റർ എന്താ പറയുക അത് കുറച്ചു കാലത്തേക്ക് ആ ജോബ് ഉണ്ടാകുക അതായത് വലിയ റിസ്ക് ഇല്ലാത്ത അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എന്താ പറയുക അത് ഫിസിക്കലി ആയിട്ട് ഓവർ ചെയ്യാത്ത രീതിയിലുള്ള വർക്ക് അത് ഇങ്ങനെ ഫിസിക്കൽ ആയി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു ടൈം ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ചു ഏജ്ഡ് ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക ശരീരത്തിന് പിന്നെ നമുക്ക് ഫിസിക്കൽ ആയാൽ ചെറിയൊരു ഫിസിക്കൽ ആയിട്ട് തന്നെ നമ്മൾ തളർന്നു പോകും അതുകൊണ്ട് കുറച്ച് ഫിസിക്കലായിട്ടുള്ളത് കുറഞ്ഞിട്ടുള്ള വർക്ക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അത് എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഫിസ് ഫിസിക്കൽ ഒഴിവാക്കിയിട്ടുള്ള അതല്ല കുറച്ചു ഫിസിക്കൽ വേണം എന്നാലും ഓവർ ഹൈ ഫിസിക്കൽ ആകാത്ത വർക്ക് അത് കുറച്ചു ബെനഫിറ്റ്സ് ഉണ്ടാകുകയും വേണം